ഇതെന്ത് ഗ്യാസാണ് ഗ്യാസിൻ്റെ സിലിണ്ടറിന് വല്ലപ്പോഴും പെയിൻറ്റൊക്കെ ഒന്ന് അടിക്കണം കാരണം വെച്ചാൽ ഇത് മൊത്തം തുരുമ്പൊക്കെ എടുത്ത് ഇരിക്കുകയാണ് എപ്പോഴാ ലീക്കാവുന്നത് പറയാൻ പറ്റത്തില്ല വീട്ടിൽ കൊണ്ടുപോയിട്ട് സേഫായിട്ട് വെക്കാൻ പറ്റത്ത് തന്നെ ഇല്ല കാരണം പിള്ളാരുണ്ട് വീട്ടിൽ വൈഫുണ്ട് മറ്റ് കുടുംബക്കാരുണ്ട് ഇപ്പോൾ ഒരു വിശേഷദിവസം ഒക്കെ ആണെങ്കിൽ ആരേലും ഒക്കെ വരുകയൊക്കെ ആണെങ്കിൽ എന്തേലും അപകടം ഒക്കെ സംഭവിച്ചാൽ എന്ത് ചെയ്യും ഇത് ബുക്ക് ചെയ്താൽ തന്നെ കിട്ടാനായിട്ട് ഷോട്ട് ഷോട്ടായിട്ട് കിടക്കുകയാണ് ഇന്ന് ബുക്ക് ചെയ്താൽ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാ ഇനി ഗ്യാസ് വരുന്നതൊക്കെ തന്നെയായിട്ട് കൊണ്ടുവരുന്നവർ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുമോ കാര്യങ്ങളോ ഒന്നും ഇല്ല അവർ കൊണ്ടുവന്നിട്ട് വേണ്ട നമ്മൾക്ക് ചുമ്മാ തരുന്നപോലെ വന്നിട്ടാ അവർ പോവുന്നത് അവരെ ഷൗട്ടിംഗ് വേറെയും ആണ് അപ്പം ഇത് നല്ല ഒരു നമുക്ക് നമ്മുടെ സേഫിനായിട്ട് ഇത് അങ്ങനെ പ്രയോരിറ്റി ആകത്തില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വൃത്തിയായിട്ട് പെയിൻറ്റൊക്കെ അടിച്ച് നല്ല ഇതൊക്കെ ആക്കി എടുക്കണം എന്നാലേ നമുക്ക് ഈ എടുക്കാൻ ഒക്കെ പറ്റത്തുള്ളൂ കാരണം നമ്മുടെ സുരക്ഷിതം നമ്മൾ നോക്കണമല്ലോ കാരണം കൊച്ചുകുട്ടികളൊക്കെ ഉണ്ട് അപ്പം അവർ ഇടയ്ക്ക് പോയി പിടിക്കുകയോ തൊടുകയോ ഒക്കെ ചെയ്യുമ്പോൾ അപ്പോഴെങ്ങാനും അപകടം ഒക്കെ ഉണ്ടാവുന്നതെങ്കിലോ ആരു സമാധാനം പറയും നിങ്ങൾ സമാധാനം പറയാൻ വരുമോ ഇല്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് തന്ന് നിങ്ങളുടെ ഡ്യൂട്ടി തീരും അത്രേ ഉള്ളൂ